മലയാളത്തിൽ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും എനിക്ക് ചില ഘട്ടങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അത് എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് ആംഗലേയ പദങ്ങൾ കയറിവരും സംസാരത്തിനിടയ്ക്ക് ആംഗലേയ പദങ്ങൾ കയറി വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സാധാരണയായി സംസാരിക്കുമ്പോൾ വിദ്യാലയങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ആണ് പൊതുവേ നമ്മളൊരു സംസാരത്തിന് പ്രാഭിമുഖ്യം കൊടുക്കുന്നത് അതിനിടയ്ക്ക് നമുക്ക് ആംഗലേയ പദങ്ങൾ നിർബന്ധമാണ് അത് നമ്മുടെ നിത്യ ജീവിതത്തിനും കടന്നുവരുന്നത് കൊണ്ട് ആ ഒരു ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട് ഒന്നാമത് പറയാൻ പറ്റുന്നത് അതാണ് പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലതിൻ്റെ ഒക്കെ യഥാർത്ഥ മലയാളം വാക്ക് നമുക്ക് കിട്ടാതെ വരും ചില ആംഗലേയ വാതു വാക്കുകൾക്ക് പറ്റിയ മലയാള പദം പെട്ടെന്നുള്ള സംഭാഷണ ഇടയിൽ ചിലപ്പോൾ കിട്ടാതെ വരുന്നത് അത് നമ്മുടെ സംസാരത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട് കാരണമെന്നുവെച്ചാൽ യഥാർത്ഥ ഒരു വാക്ക് അതിനു വേണ്ടി ഉണ്ടാവും അത് ഇപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല അതുകൊണ്ട് അത് എൻ്റെ സംസാരത്തിനെ ബാധിക്കാറുണ്ട് പിന്നെ വേറെ ഒന്ന് എന്ന് വെച്ചാല് ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ തന്നെ യഥാർത്ഥ സ്വരം ചിലപ്പോൾ ലഭിക്കാതെ തെറ്റിച്ച് ഞാൻ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പം എന്താണ് പറയുക പായുടെ സ്വരങ്ങളിൽ പായോ തായോ അതിൻ്റെ സ്വരങ്ങളിൽ നാല് സ്വരങ്ങൾ ഉണ്ട് പ ഫ ബ ഭ മ എന്നുള്ള രീതിയിൽ അതിപ്പം ബലിഷ്ഠമായ എന്നൊരു വാക്കിൽ തന്നെ അതിപ്പം ബ യുടെ ഏത് ബായാണ് ആ സ്വരങ്ങളിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു തപ്പിത്തഴയൽ ചില സമയത്ത് എനിക്ക് വരാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അത് കൂടാതെ വേറൊന്ന് എന്ന് പറയുന്നത് നമ്മൾ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഉദാഹരണത്തിന് രാമായണം കർക്കിടക മാസങ്ങളിൽ രാമായണം തന്നെ വായിക്കാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ആ ഒരു വായനയുടെ ആ ഒരു ഒഴുക്ക് കിട്ടുന്നില്ല കാരണം ഒരു വാക്കിന് തന്നെ നല്ല ഒരു നീളമുള്ള നീളമുള്ള വാക്കായിരിക്കും രാമായണങ്ങളിൽ ഉണ്ടാവുക അപ്പം അത് ഒരേയൊരു ഒഴുക്കിൽ നമുക്ക് വായിക്കാൻ കിട്ടാതെ വരുന്ന അതാണ് എനിക്ക് സംസാരത്തിലോ എഴുതുമ്പോഴോ കണ്ടുവരുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ